എൻ്റെ പ്രദേശത്തെന്ന് പറയുമ്പോൾ ഇതൊരു റെസിഡൻ്റ് റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ടുതന്നെ ഇപ്പോൾ ഓണം ആയാലും ക്രിസ്മസ് ആയാലും എന്തെങ്കിലുമൊക്കെ ഒരു ആഘോഷങ്ങളൊക്കെ വരുമ്പം ഈ ഭാഗങ്ങളിൽ എല്ലാവരും കൂടി എന്തെങ്കിലും പരിപാടികളൊക്കെ അവതരിപ്പിക്കാറുണ്ട് ഇപ്പോൾ ഓണമൊക്കെ ആണെങ്കിൽ കസേര കളി വടംവലി പിന്നെ അങ്ങനെ ഒരുപാട് ഇപ്പോൾ സുന്ദരിക്ക് പൊട്ടുതൊടൽ അങ്ങനെ ഒരുപാട് കളികൾ കളിക്കാറുണ്ട് അതുപോലെ ക്രിസ്മസൊക്കെ ആയാൽ ഒത്തൊരുമിച്ച് ഗാനമേള പോലെ പാട്ടുപാടി കരോക്കെ കരോക്കെ ഒക്കെ പാടി പിന്നെ ഒരുമിച്ച് കേക്ക് ഒക്കെ ഉണ്ടാക്കി മുറിച്ച് അങ്ങനെ ഒരുപാട് വിനോദ പരിപാടിയിൽ ഏർപ്പറ എ ഏർപ്പെടാറുണ്ട് പിന്നെ വീട്ടിനടുത്തുള്ളവരൊക്കെ കൂടിയിട്ട് ഒരുമിച്ച് പിന്നെ ക്യാരംസ് ഒക്കെ ചില ഇപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ ഷട്ടിൽ കളിക്കാറുണ്ട് അതുപോലെ ക്യാരംസ് ക്യാരം ബോർഡ് കളി കളിക്കാറുണ്ട് പിന്നെ പാമ്പും കോണിയും കളിക്കാറുണ്ട് പിന്നെ ലുഡോ ലുഡോ ഫോണിലായിട്ടും അല്ലാതെ ബോർഡ് വെച്ചിട്ടും അങ്ങനെ ഒരുപാട് കളികൾ കളിക്കാറുണ്ട് പിന്നെ ക്രിക്കറ്റ് ഫുട് ബോൾ അങ്ങനെ ആൺകുട്ടികൾ എല്ലാവരുംകൂടി അങ്ങനെയുള്ള ഒരുപാട് കളികൾ കളിക്കും പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഷട്ടിൽ കൂടുതലും ഷട്ടിൽ തന്നെയാണ് കളിക്കാറ് പിന്നെ രാത്രിയൊക്കെ ഒരു എട്ടര ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കൂടി ഇറങ്ങി നല്ല രീതിയിൽ തന്നെ കളികളിൽ ഏർപ്പെടാറുണ്ട്